നമ്മുടെ പ്രദേശത്തെ പരമ്പരാഗത കളികളെന്ന് പറഞ്ഞുകഴിഞ്ഞാ ഒന്ന് ഗോട്ടികളി ആണ് പിന്നെ ഉള്ളത് പോലീസും കള്ളനും പിന്നെ ഇപ്പം പുതുതായിട്ട് ഫുട്ബോള് ക്രിക്കറ്റ് തുടങ്ങിയവയൊക്കെ നാട്ടുമ്പുറങ്ങളിലും വ്യാപിച്ചിട്ടുണ്ട് പരമ്പരാഗത ഇവയൊക്കെയാണ് പിന്നീട് കുട്ടിയും കോലും ഉണ്ട് അങ്ങനെയുള്ള കളികളൊക്കെയാണ് പ്രധാനമായിട്ടുള്ളത് പാരമ്പരാഗതമായിട്ട് പ്രധാനമായിട്ടും ഗോട്ടികളിയാണ് ഒരു കളി എന്ന് പറയുന്നത് ഗോട്ടികളി പണ്ടുമുതലേ ഇള്ളതാണ് അത് നമ്മള് പൊതുവെ അങ്ങനെ കളിക്കുന്ന കളിക്കൽ എനിക്കിതിനോട് വലിയ താല്പര്യമുള്ള കളി അല്ല ഗോട്ടികളി അതുകൊണ്ട് ഞാൻ കളിക്കൽ ഇല്ല എൻ്റെ കൂട്ടുകാരൊക്കെ കളിക്കലുണ്ട് ഞാൻ കളി കണ്ട് നിക്കലുണ്ട് പക്ഷെ ഇത് ഞാൻ ഗോട്ടി കളിക്കാൻ നിക്കാറില്ല പിന്നെ കുട്ടിയും കോലും കളിക്കലുണ്ട് കുട്ടിയും കോലും കളിക്കലെന്ന് പറഞ്ഞാൽ അത് ഒരു കുട്ടി ഒരു ചെറിയ കോലുകൊണ്ട് അടിച്ച് തെറിപ്പിച്ച് അത് അതിൻ്റെ പുറകെ ഓടി അതൊരു ഒരു നാട്ടുമ്പുറത്തുള്ള പഴെയൊരു കളിയാണ് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു കുട്ടിയും കോലും എന്നാണ് പറയാ രണ്ട് ചെറുത്തുകളും കുറേ വലുതുകളും കൂടെയുള്ള കോലായിരിയ്ക്കും ആ കോല് ചെറിയ കോലിനെ വലിയ കോലുകൊണ്ട് അടിച്ച് തെറിപ്പിച്ച് അതിനായിട്ട് ബന്ധപ്പെടുത്തി അങ്ങനെ ഉള്ളൊരു കളിയാണ് അതൊക്കെ പഴേ കാലങ്ങളില് കളിച്ചോണ്ടിരുന്ന ഒരു കളിയാണ് അത് ഇപ്പോഴും ചെല കുട്ടികളൊക്കെ കളിക്കലുണ്ട് അതിനെ പരമ്പരാഗത ഒരു കൊറച്ച് മോഡേൺ ആയിട്ടുള്ള രൂപം ഒക്കെ ഇപ്പൊ കുട്ടികളുടെ ഇടക്ക് കണ്ടുവരുന്നുണ്ട് ഇതൊക്കെയാണ് പ്രധാനമായിട്ടും കളിക്കും കളി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇന്നത്തെക്കാലത്ത് അങ്ങനെ ഈ പരമ്പരാഗത കളികളൊന്നും ഇല്ല പകരം ഫുഡ്ബോള് ക്രിക്കറ്റ് തുടങ്ങിയ കളികള് ഒക്കെത്തന്നെയാണ് ഉള്ളത്